എൻ്റെ ജന്മനാടെന്നു വച്ചിട്ടുണ്ടെങ്കിൽ വയനാടാണ് ഞാൻ താമസിക്കുന്നത് മാനന്തവാടി എന്നു പറഞ്ഞൊരു സ്ഥലത്താണ് മാനന്തവാടി എന്നു പറഞ്ഞൊരു സ്ഥലത്താണ് താമസിക്കുന്നത് എനിക്കവിടെ ഏറ്റവും ഇഷ്ടം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജനിച്ചു വളർന്ന് കളിച്ച സ്ഥലമാണ് അപ്പം കൂട്ടുകാരൊക്കെ അവിടെയാണ് അപ്പം മെയിനായിട്ട് നമ്മുടെ അതായത് സുഹൃത്ത് ബന്ധങ്ങളൊക്കെ നിലനിർത്താൻ നമുക്ക് അവിടെയാണ് നമ്മൾ ജനിച്ച സ്ഥലത്തായിരിക്കും നമുക്കേറ്റവും കൂടുതൽ ഉണ്ടാവുക പിന്നെ ഇപ്പോൾ കല്ല്യാണം കഴിച്ചു കൊണ്ടു വിടുന്നത് ആളൊക്കെയാണെങ്കിൽ നമുക്കത് വല്ലാണ്ട് മിസ്സ് ചെയ്യും പിന്നെയെന്താണെന്നു വച്ചാൽ മെയിൻ എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയും അവിടെയാണ് നമുക്ക് അച്ഛനും അമ്മയും ഉള്ള ഇതാണല്ലോ നമുക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യം അപ്പം പിന്നെ നഗരത്തെക്കുറിച്ച് എന്നു വച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് പുഴകളുണ്ട് അതായത് പിന്നെ പാർക്ക് ബീച്ച് ബീച്ചില്ല പാർക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയുണ്ട് പിന്നെ കുട്ടികളായിട്ട് നമുക്ക് കളിക്കാം നമുക്ക് കുറേ നൊസ്റ്റാൾജിക്ക് മൊമെൻ്റ്സാണ് നമുക്ക് ആ അതായത് നമ്മൾ ജനിച്ച സ്ഥലവുമായിട്ടുള്ളത് പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെത്തന്നെയാണ് ഇതൊക്കെത്തന്നെയാണ് ഇതൊക്കെക്കൊണ്ടാണ് എനിക്ക് എൻ്റെ ജനിച്ച സ്ഥലം ഏറ്റവും ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം